ഇത് പഞ്ചമൻ്റെ കടയാണോ പഞ്ചമൻ നേരത്തെയെനിക്ക് രണ്ടു ബിരിയാണി തന്നിട്ടുണ്ടായിരുന്നു ആ ബിരിയാണി കൊള്ളത്തില്ലായിരുന്നു ഇപ്പോള് ഞങ്ങളുടെ വീട്ടിൽ ഒരു അഞ്ചെട്ടുപത്തുപേരു വരുന്നുണ്ട് അവർക്ക് കഴിക്കാനുള്ള ചിക്കൻ ബിരിയാണി വേണം പഴേതുപോണക്കുള്ളതാണെങ്കിൽ വേണ്ട ഞാൻ വേറെ കടയില്നിന്നു ഓഡര് ചെയ്യാൻ പോവാണെ നല്ലതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് ആളുടെ കയ്യില് കൊടുത്തുവിടണം അതോ ഞാൻ ആളിനെ ആളിനെ വിടണോ അതോ ഞാൻ തന്നെ വരണോ എന്നാന്നു വച്ചാല് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചുപറഞ്ഞാല് മതി എന്നിട്ടു മാത്രമേ ഞാൻ ആളിനെ വിടത്തുള്ളൂ ഏതായാലും വായിൽ വച്ച് കഴിക്കാൻ കൊള്ളാവുന്നതായിരിക്കണം പഴേതുപോണക്കുള്ള ഭക്ഷണം എനിക്ക് തന്ന് എന്നെ മണ്ടിയാക്കരുത് ഞാന് മണ്ടിയാകാൻ പോവുന്നില്ലിനിയും കേട്ടോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഞ്ചെട്ട് പേർക്ക് കഴിക്കാനുള്ള ചിക്കൻ ബിരിയാണി വീട്ടിൽ എത്തിക്കണം

ഒരു പത്ത് ഐസ് ക്രീമും വേണം ആ അതെല്ലാം കൂടെ എത്രയും പിടീന്നു കൊടുത്തു വിടണം ആ മതി ഏതായാലും പാന്